ആ ഇന്ത്യയുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇപ്പം പറയുകയാണെന്ന് ഉണ്ടെങ്കിൽ പഴയത് പണ്ട് കാലങ്ങൾ അതായത് ഓൾഡ് ജനറേഷൻ ആൻഡ് ന്യൂ ജനറേഷൻ തമ്മില് അവരുടെ ഫാഷൻ ടേസ്റ്റ് അതില് നല്ല ഡിഫ്രൻസുണ്ട് ലൈക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓക്കെ പുരുഷന്മാരിലെടുക്കാം അവര് പണ്ടത്തെ കാലങ്ങളിൽ അല്ലേൽ ഇപ്പം എന്താണ് പറയുന്നത് ധോത്തി മുണ്ടും ഇപ്പം ഞാൻ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കേരളം മലയാളികളെ കുറിച്ചാണ് മലയാളികൾ പൊതുവെ പണ്ട് അത് പണ്ട് അവര് ഷർട്ട് മുണ്ട് ഇങ്ങനത്തെ ഇതാണ് ഇടാറുള്ളത് അപ്പം അത് പൊതുവെ ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു മലയാളിത്തം ലൈക്ക് ആ മലയാളികളെ പറ്റി പറയുമ്പത്തേന് അങ്ങനെയാണ് പുരുഷന്മാർ അതാണിടാറുള്ളത് അതാണ് യാ ഇപ്പം കുറച്ചും കൂടെ എന്താ പറയുക പുതിയ ഇന്ത്യ ആ പുതിയ ഇപ്പം ലൈക്ക് ഒരു ട്രാൻസ്ഷിപ്പ്മെൻറ്റുണ്ട് ലൈക്ക് ഷര്ട്ടും മുണ്ടുവായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞിപ്പം ജീൻസ് പാന്റ്സ് ഷേട്ടായി പാന്റ്സ് പാന്റ്സ് വന്നു പിന്നെ ഫോർമലിലേക്ക് മാറി പിന്നെ ഇപ്പം പറയുകയാണെന്ന് ഉണ്ടെങ്കിൽ പലതരം വേരിയേഷൻസ് ഉണ്ട് അത് ഫാഷൻ ഫാഷൻ സെൻസിൽ പുരുഷന്മാരുടെ രീതി പറയുകയാണെന്ന് ഉണ്ടെങ്കിൽ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാഷൻ സെൻസ് എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാട്ടും കൂടുതലിപ്പോൾ സ്ത്രീകളിലാണത് റിഫ്ലക്ട് ചെയ്യുന്നത് അത് ഫാഷൻ സെൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പണ്ട് പൊതുവെ മലയാളികളായി കണക്കാക്കപ്പെടുന്നത് സാരി അതായിരുന്നു സാരിയായിരുന്നൊരു പ്രധാന വേഷം എന്ന് പറയുന്നത് പിന്നെ ഈ ചില ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യാനികള് പൊതുവെ വി ആർ ഇപ്പം ഓക്കെ ഇപ്പം ചിലയിടത്ത് വീട്ടിലും പണ്ട് മുതല് സാരി ഉടുക്കുകയും വീട്ടിലും സാരി ഉടുത്തുകൊണ്ടിരിക്കുന്ന ചില കുടുംബക്കാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ക്രിസ്ത്യാനികള് പറയുകയാണെങ്കിൽ ചട്ടയും മുണ്ടും എന്ന് പറഞ്ഞൊര് വേഷം ഉണ്ടായിരുന്നു അത് പൊതുവെ അത്യാവശ്യം നല്ല ഫേമസാണ് അത് ഇന്ന് പക്ഷേ ഭയങ്കര കുറവാണ് ഇപ്പം ഈ അമ്മച്ചിമാരിപ്പം ഈ ഈ ലാസ്റ്റ് ജനറേഷൻലെ അമ്മച്ചിമാരില് ഇതാണ് മിക്കവരും ഈ ചട്ടയും മുണ്ടും ഇട്ട് ഉടുത്ത് കാണുന്നത് അത് ഏകദേശം അതും തീരാറായി ചട്ടയും മുണ്ടും ഒര് ഫാഷനായിരുന്നു ഒര് സമയത്ത് ആൻഡ് ഇപ്പം മാർഗ്ഗം കളി കളിക്കുമ്പഴും മാർഗ്ഗം കളി അത് പോലൊരു ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിപാടിയാണ് മാർഗ്ഗം കളി മാർഗ്ഗം കളിക്കിപ്പഴും ചട്ടയും മുണ്ടുവാണ് ആൾക്കാര് സ്ത്രീകള് പൊതുവെ ഉടുക്കാറ് പിന്നെ സാരി സാരിയുടെ ആ ഒരു ഫാഷൻ ഇപ്പഴും നില നിൽക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഓണം കേരളപ്പിറവി അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ സാരിയും സ്ത്രീകള് സാരിയും സാരിയും പുരുഷമാരായാല് ഷർട്ടും മുണ്ടും അല്ലേൽ ജുബ്ബയും മുണ്ടും ഇതൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് സ്ത്രീകള് ഇപ്പം സ്ത്രീകള് ഈ പുരുഷനമാരുടെ പോലത്തെ ഡ്രസ്സുകള് ധരിക്കാറുണ്ട് ഇപ്പം ജീൻസായാലും പാന്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷർട്ട്സ് അതൊക്കെ സ്ത്രീകളും ഇന്ന് സ്ത്രീകളും ധരിക്കാറുണ്ട് അപ്പം പണ്ടത്തെ വെച്ച് നോക്കുമ്പം നല്ല മാ പണ്ട് ഇതൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഇതിന്റെയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാ പക്ഷേ ഇപ്പം നല്ലോണം കൂടുന്നുണ്ടിപ്പം ഏകദേശം ഈക്വലാണ് സ്ത്രീകളും പുരുഷന്മാരും അവര് ഉടുക്കുന്നത് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം ഷർട്ട് പോരാ ഷർട്ടും വേ ആ ഷർട്ടും പാന്റും ഇട്ട് ഷർട്ടും ജീന്സും ഇട്ടിറങ്ങി കഴിഞ്ഞ്

ജുബ്ബയും മുണ്ടും പൊതുവേ കാ കോട്ടയം ആ ഒര് സൈഡിലേക്കാണ് കുറച്ചും കൂടെ ഇതായിട്ട് നിൽക്കുന്നത് ആ സ്ത്രീകളും ഇത് പോലെ എന്തെങ്കിലും കേരളപ്പിറവി അല്ലെങ്കിൽ ഓണം മലയാളത്തിത്തെ റെപ്രസെൻ്റെ ചെയ്ത് എന്തെങ്കിലും ഒരു ആഘോഷം വന്ന് കഴിഞ്ഞാലവര് പ്രിഫർ ചെയ്യുന്നത് സാരിയായിരിക്കും അപ്പം ആ അല്ലാതെ എന്തെങ്കിലും ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കാനാണെങ്കിലും സാരി ഉടുക്കുന്നവരുണ്ട് പക്ഷേ മലയാളികൾ മലയാളികള് ചിലര് സാരി ഉടുക്കുന്നത് കാണാം പക്ഷേ ആ ആ ഉടുത്ത ഇതുവായിട്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവായിരിക്കും

അപ്പം വേറൊരു ലൈഫ് സ്റ്റൈലാവുമ്പഴത്തേക്കിനും ഫാഷൻ സെൻസും അവരുടെ ട്രെൻസും എല്ലാം കൂടെ മാറും അപ്പം ഇപ്പം എല്ലാം കുറെയും കൂടെ കുറെ സൈഡുകൾല് ഡിഫ്ര ഇപ്പം എല്ലാവർക്കും സെയിം ഒരു ഇതായിരിക്കണോന്നില്ലല്ലോ ഇപ്പം പല സൈഡുകളിലും പല തരത്തിലുള്ള വേഷങ്ങളാണ് ധരിക്കുന്നത് എന്നാലും മെയിനായിട്ട് മലയാളിത്തത്തെ റെപ്രസെൻ്റെ ചെയ്ത് വരുമ്പോൾ പുരുഷമാരും സ്ത്രീകളും മെയിനായിട്ട് ധരിക്കാറുള്ളത് ഷർട്ടും മുണ്ടും സാരിയും അങ്ങനത്തെ ഇതൊക്കെയാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെറിയ ഷർട്ടും പാന്റും ഷർട്ടും ജീൻസും ഇടുന്നതാണെന്ന് ഷർട്ട് ഷർട്ടും ജീൻസും ഇടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിളായിട്ട് ഉള്ളത്